ഒരു ഗെയിമിനെ ഭേദഗതി വരുത്താന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ കോളഫ് ഡ്യൂട്ടി എന്നു പറഞ്ഞിട്ടുള്ളൊരു ഗെയിമുണ്ട് അതില് അത് ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ഗെയിമാണ് അതിനെ തേർഡ് പേഴ്സണാക്കിയാൽ നന്നായിരിക്കും എന്നു ഞാൻ ആലോചിട്ടുണ്ട് തേർഡ് പേഴ്സൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനെ നമ്മൾ നമ്മളെ വേറൊരാള് വേറൊരാളുടെ കാഴ്ചപ്പാടിൽനിന്ന് നമ്മൾ നമ്മളെ തന്നെ കാണുന്നതാണ് തേർഡ് പേഴ്സൺ വ്യൂ ആ അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ വളരെയധികം നന്നായിരുന്നേനേ കാരണം എനിക്ക് മോഷൻ സിക്നെസ്സുണ്ട് മോഷൻ സിക്നെസ്സിൽ നമ്മൾ കൂടുതൽ നേരം ഒരു അനങ്ങുന്ന വണ്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ അനങ്ങുന്ന ഒരു വീഡിയോ കാണുകയോ ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് തന്നത്താനേ ശർദ്ധിക്കാനുള്ള ടെൻഡൻസീസ് അഥവാ സൂചനകൾ ലഭിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോള് അതൊരു നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് വേറെ ഒരു ഇത് സംഭവം എന്താണെന്നു വച്ചാൽ ഒരു ഗെയിം കണ്ടെൻന്റാണ് നമ്മള് വളരേയധികം ഭംഗിയുള്ള ഒരു മലനിരപ്പിലൂടെ ഓ ഒരു റോഡ് പണിയുകയാണ് ആ റോഡ് പണിയുമ്പോൾ അത് നമ്മുടെ നമുക്ക് നമ്മുടെ രീതിയില് റോഡ് പണിയാം എങ്ങനെ ഏത് വഴിയിലൂടെ പോകണമെന്ന് എന്നിട്ട് ആ റോട്ടിക്കൂടെ തന്നെ നമുക്ക് ഒരു വണ്ടി വാങ്ങിച്ചിട്ട് അത് ആ നിരത്തിലൂടെ ഓടിക്കാനും പറ്റണം അതൊരു നല്ലൊരു ഗെയിമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊരു ഐഡിയ എനിക്ക് വളരെയധിക കാലം ഉണ്ടായിരുന്നു ആ ഗെയിമിൻ്റെ പേര് ട്രെയിൽ റൈഡർ എന്നു വയ്ക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്